ഞാൻ ചെയ്ത ബൈക്ക് യാത്രകള് ഒരുപാട് യാത്ര ഒരുപാട് വഴികൾ വളരെ അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു ഞാൻ ഇവിടുന്ന് കാശ്മീര് പോയ വഴിക്കുണ്ടായ അനുഭവങ്ങള് വളരെ വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നു കാരണം ഇവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ദുരന്തം നശിച്ച അനുഭവങ്ങൾ എനിക്കുണ്ടായി വഴിയില് വണ്ടി പഞ്ചർ ആകുന്നു ആൾക്കാര് നമുക്ക് ലിഫ്റ്റ് ചോദിച്ചിട്ട് അവര് നമ്മളുടെ ആ സാധനങ്ങള് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനത്തെ കുറെ അനുഭവങ്ങള് നമുക്ക് വഴികളിൽ നിന്നുണ്ടാവും വഴികളില് വളരെ ദുർഗ്ഗം പിടിച്ച വഴിയാണ് ഡൽഹി വഴി ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരാൻ തുടങ്ങുമ്പോഴും നമുക്ക് തന്നെ പേടിയാവും നീണ്ട് കിടക്കുന്ന വരി പാതയിലൂടെ ചീറി പാഞ്ഞ് പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട് അതിന് ഇടയിൽ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് തന്നെ പേടിയാവും പക്ഷെ ഒരുപാട് ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല അനുഭവങ്ങള് നമുക്ക് ലഭിക്കും ഒരുപാട് നല്ല സൗഹൃദങ്ങള് നമുക്ക് വഴിക്ക് വെച്ച് തന്നെ കിട്ടും അങ്ങനത്തെ കുറെ അതൊരു വഴികളുണ്ട് പിന്നെ ഇവിടുന്ന് ഊട്ടി പോകുന്ന റൂട്ട് മസനഗുഡിയിലൂടെ നമ്മൾ ഊട്ടിക്ക് പോകുന്നത് ആ ബാംഗ്ലൂര് പോകുന്നത് ആ നാട്ടിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് ബാംഗ്ലൂര് പോകുന്ന വഴികള് ആ അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് നമ്മൾ ശ്രീനഗറ് അങ്ങോട്ടേക്ക് പോവുന്ന യാത്ര നേപ്പാള് ഇടുക്കി നേപ്പാൾ യാത്ര ഇടുക്കിയിൽ നിന്ന് നമ്മള് ഭൂട്ടാൻ പോകുന്ന യാത്ര വഴികള് ഇവയെല്ലാം വളരെയേറെ അപകടങ്ങൾ നിറഞ്ഞ വഴികളാണ് പക്ഷെ ഒരുപാട് ദൃശ്യ വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന വഴികളുമാണ്